ബാങ്കുകളിൽ നിന്ന് ഞാൻ ഇതുവരെ ലോൺ എടുക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല എന്നാൽ ബാങ്കുകളുടെ ളുടെ പെരുമാറ്റം വളരെയധികം മോശമാണ് പ്രത്യേകിച്ച് ഗവൺമെന്റിൻ്റെ ബാങ്കുകൾ അവർക്ക് ഗവൺമെൻറ് ജോലി കൊടുക്കും ഗവൺമെൻറ് സാലറി കൊടുക്കും എന്നതിനാൽ വളരെയധികം മ്ലേച്ഛമായ രീതിയിലാണ് കസ്റ്റമേഴ്സിനോട് അവർ സംസാരിക്കാറ് ആര് വന്നാലും അവർക്ക് ഒരു ബാധ്യത അല്ല അവർക്ക് സാലറി ഗവൺമെൻറ് തന്നോളും എന്നൊരു രീതിയിലാണ് അവർ എപ്പോഴും പ്രവർത്തിക്കാറുള്ളത് ബാങ്കിലെ ലോണുകൾ കൂടുതൽ എളുപ്പമാക്കാൻ അറിയുന്ന ആളുകളെ കൂട്ടിക്കൊണ്ടോവുന്നതാണ് കൂടുതൽ നല്ലത് അവർക്ക് സ്വാധീനമുള്ള ആളുകളെ കൊണ്ടുപോകുവാണേൽ വളരെ എളുപ്പം ബാങ്കിൽ നിന്ന് ലോണുകൾ കിട്ടും അതുപോലെ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുക്കണേൽ കൂടുതൽ എളുപ്പത്തിൽ ലോണുകൾ കിട്ടാൻ എളുപ്പമാണ്